അതെ അതെ അതെ എന്തായിരുന്നു അതെ അല്ലേ ആ അപ്പോൾ നിങ്ങൾ കിട്ടി അല്ലേ ഓക്കെ ഓക്കെ ആണല്ലേ അപ്പം മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് വൃത്തികേടായികിടക്കാണെങ്കിൽ നമ്മൾ കുറച്ചധികം തന്നെ പണിയുണ്ടാവും പണിക്കാരതും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നല്ല ബഡ്ജറ്റെന്നെ വരും അതുപോലെ തന്നെ നമ്മൾ പുട്ടിയിട്ട് അതുപോലത്തെ നല്ലൊരു ഫിനിഷിംഗിലെന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ ഓക്കെ ഓ അതുപോലത്തന്നെ നമ്മളിപ്പം എക്സ്ട്രാ ആയിട്ട് ഇപ്പം ജനലുകൾ വാതിലുകളൊക്കെ പോളീഷിംഗും ചെയ്ത് കൊടുക്കുന്ന് അപ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ ഒരു ബഡ്ജറ്റ് കാര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ബഡ്ജറ്റ് ഞാനിപ്പോൾ പറഞ്ഞേരാ ഒരു വൺ പോയിൻറ്റ് ഫൈവായിരിക്കും ഏകദേശം ഒരു ബഡ്ജറ്റ് കേട്ടോ ഏഹ് എന്തായിരുന്നു ഒന്ന് കൂടി പറയോ ഓ അപ്പോൾ കുറച്ച് തന്നെ കുറച്ചധികം തന്നെ ഉണ്ട് ചെയ്യാന് ഓക്കെ ഓക്കെ ആ ആ അപ്പം ആ വീടൊക്കെ വന്ന് കണ്ടിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും അതുപോലത്തന്നെ കളറും കാര്യം കളറെങ്ങനെയാണ് നിങ്ങൾ ന്യൂഡാണോ ബ്രൈറ്റ് കളേഴ്സ് അതെ അല്ലേ അപ്പം ഞാൻ ആ ഏകദേശം ഒരു കളറ് ഞാൻ നിങ്ങക്ക് അയച്ചേരാം ങേ ആണ് അപ്പോൾ അതുപോലത്തന്നെ ഏഹ് കളർ ഓപ്ഷൻസ് ഞാൻ കുറച്ചധികം ന്യൂഡ് കളേഴ്സാണ് ഉദ്ദേശിക്കൽ ഒരു കളർ ഓപ്ഷൻസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഈ നമ്പറിൽ അയച്ചാൽ പോരെ ആ അതുപോലത്തന്നെ എന്താ പറയാ ഇപ്പം നമുക്കവിടെ എത്തിച്ചേരാൻ ഇപ്പം എങ്ങനെയാണ് ലൊക്കേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് അയച്ചരൊ ഇപ്പോൾ എങ്ങനാ അതെ അല്ലേ അപ്പോൾ ആ നമ്മുടെ ഓഫീസും അതിനടുത്തന്നെ ആണ് അതോണ്ട് വലിയ കുഴപ്പങ്ങളില്ല ആ ആ അപ്പോൾ സമയം കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് നോക്കാം ഓക്കെ എന്നാൽ ശരി ശരി ഓക്കെ